ഹലോ ഇത് യൂബർ ക്യാബിൻ്റെ ഏജൻസി അല്ലെ ഞാൻ ഒരു ക്യാബ് ബുക്കീതിണ്ടായിരുന്നു അതിന് മുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ അത് ക്യാബ് ബുക്കീതത് അത് ഒന്ന് എനിക്കൊന്ന് റദ്ദാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെന്താന്നു വെച്ചുകഴിഞ്ഞാല് എനിക്ക് എമർജൻസി ആയിട്ട് അത് റദ്ദാക്കണ്ടി വന്നു അപ്പോള് അതൊന്ന് എനിക്ക് റീഫണ്ട് ചെയ്ത് തരാനുള്ള സൗകര്യമൊന്ന് ചെയ്തു തരണം എന്ന വച്ചാണെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ വഴി നമ്പര് വഴിയോ അല്ലെങ്കില് ഫോൺ പേ വഴിയോ അല്ലെങ്കില് ബാങ്ക് അക്കൗണ്ട് നമ്പര് അപ്പോള് എൻ്റെ ന ഫോൺ നമ്പര് ഞാൻ വേണമെങ്കിൽ തരാം ഗൂഗിൾ പേ നമ്പര് തരാം നൈനെയ്റ്റ് നൈന് ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ത്രീ ഫോർ സിക്സ് ആണ് എൻ്റെ ഗൂഗിൾ പേ നമ്പര് ബാങ്ക് അക്കൗണ്ട് നമ്പറാണെങ്കില് കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പര് അ ഞാൻ അയച്ചു തരാം നിങ്ങളുടെ ഫോൺ നമ്പറില് ഫോൺ നമ്പര് തന്നുകഴിഞ്ഞാല് ഞാൻ അത് അയച്ചുതരാം അല്ലെങ്കില് ഫോൺ പേ ആണെങ്കിലും ഈ നമ്പര് തന്നെയാണ് എൻ്റെ ഫോൺ നമ്പറിലേക്ക് അത് ഗൂഗിൾ ഫോൺ പേ ചെയ്താല് മതി ആ അവെ ഇതൊന്ന് എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് റീഫണ്ട് ചെയ്തുതരണം